ആധുനിക കാലത്ത് മലയാളഭാഷ നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് പരസ്പരമുള്ള ആശയവിനിമയത്തിൻ്റെ കുറവാണ് കൂട് ഇപ്പോൾ കൂടുതലും സമയം ആളുകള് ചിലവഴിക്കുന്നത് ടിവിയിലും മൊബൈൽ ഫോണിലും അതുപോലെയുള്ള ഉപകരണങ്ങളിലാണ് നമ്മുടെ ആൾക്കാരു തമ്മിലുള്ള പരസ്പരമുള്ള ആശയവിനിമയം വളരേയധികം കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ കുട്ടികൾ പുസ്തകം വായന അതുപോലെയുള്ള കാര്യങ്ങൾ വളരെയധികം കുറവാണ് കൂടുതൽ സമയവും മൊബൈൽ ഗെയിമ് ടി വി ലാപ്ടോപ് എന്നിവയിലാണ് കാ ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങള് വാങ്ങി നമ്മള് വായിച്ച് അതിനൊക്കെ ധാരാളം സമയം കണ്ടെത്തി ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും കുട്ടികള് നിൽക്കുന്നില്ല കൂടുതൽ സമയം ടി വി മൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും സമയം ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ആശയവിനിമയം വളരെ അധികം കുറവാണ് ബല മലയാളം തന്നെ സംസാരിക്കാനും വായിക്കാനും കുട്ടികൾക്ക് സ്കൂളിലായാലും വളരേയധികം സാഹചര്യങ്ങള് കുറവാണ് കൂടുതലും ഇംഗ്ലീഷ് ലാൻഗ്വേജ് സംസാരിക്കണം എന്ന് നിർബന്ധമുള്ള മിക്ക സ്കൂളുകളും ഉണ്ട് അതിൽ തന്നെ അവര് കൂടുതൽ സ്ട്രിക്റ്റായിട്ടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സ്കൂളുകളില് മലയാളം ബ്രേക്ക് ടൈമിൽ പോലും സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് വളരെയധികം നിർബന്ധമാണ് കുട്ടികൾ തമ്മിൽ പരസ്പരം ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അതുപോലെതന്നെ മലയാളം ഭാഷ സംസാരിക്കാനുള്ള സാഹചര്യങ്ങളും സ്കൂളില് കുറവാണ്